തിരുവനന്തപുരം ജില്ലയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടു സംസാരിക്കുമ്പോൾ കുറച്ച് സങ്കീർണമായ വിഷയങ്ങളാണ് ഇപ്പം അതിന് ഉള്ളത് ഇപ്പോൾ നിലവിൽ കുറച്ചധികം നല്ല മെച്ചപ്പെട്ട സംവിധാനങ്ങളും പുതുതായിട്ട് കുറേ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടു വന്നിട്ടുണ്ടെങ്കിലും അത് അത്രയും സക്സസ് ആയി കണ്ടില്ല കാരണം ഇപ്പോഴും നമ്മൾ പലയിടത്തും പല റോഡിൻ്റെ വക്കിലും പല ഇത് ഒഴിഞ്ഞ് കിടക്കുന്ന പറമ്പുകളിലും ഒക്ക ധാരാളം വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നതായിട്ടാ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം ഇപ്പോഴേ നമ്മുടെ ആമഴിയഞ്ചാൻ തോട്ടിൽ സംഭവിച്ച ഈ വലിയ ദുരന്തം നമ്മുടെ കൺമുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് ഇത് ഇനിയും നമ്മള് ഈ ഇക്കണ്ട ഓടകളിലെല്ലാം ഇങ്ങനെ വേസ്റ്റ് ഈ ഈ നമ്മുടെ ജലാശയങ്ങൾ മലീമസപ്പെടുമ്പോഴാണ് ശരിക്കും വേസ്റ്റ് വീണ്ടും വീണ്ടും നമ്മൾ നമ്മൾ തന്നെ നമ്മൾ ഇത് ഒഴുകി നടക്കുന്ന ത് മാലിന്യങ്ങളെല്ലാം ഒഴുകി നടക്കുന്ന രീതിയാകുമ്പോഴത്തേക്ക് ഇത് നമ്മൾ നമ്മളെ തന്നെ തിരിച്ച് നമ്മൾ ഇടുന്നത് നമ്മളെ തന്നെ തിരിച്ച് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുന്നൂ എന്നുള്ളതാണ് അതായത് മലയാളത്തില് നമ്മള് മലന്ന് കിടന്ന് തുപ്പും പോലെയാണ് ഈ ഇപ്പഴത്തെ വേസ്റ്റ് മാനേജ്മൻ്റിൻ്റെ ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത് അപ്പം നമ്മൾക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യം തരംതിരിച്ച് തന്നെ കുറച്ചും കൂടെ വളരെ നല്ല രീതിയിൽ ചെയ്യണമെങ്കില് തരംതിരിച്ച് മാലിന്യം സംസ്കരണം തരംതിരിച്ച് തന്നെ വികേന്ദ്രീകരകൃത മായി തന്നെ ഇത് വികേന്ദ്രീകൃതമായി തന്നെ ഇത് ചെയ്ത് ഇതിനെ ഇത് ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം